സംസ്ഥാന വ്യവസായങ്ങളുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ പ്രധാന വ്യവസായസംഘടനകളിലൊന്നാണ് എ കെ ടി എ എ കെ ടി എ ന്നുവച്ചാല് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അതിലൂടെ തന്നെ പലരീതിയിലുള്ള ഗാർമെൻസ് മെയ്ക്കിങ് അതായത് നൈറ്റി നിർമ്മാണം ത് അണ്ടർ സ്കർട്ട് നിർമ്മാണം പല പല എംബ്രോയിഡറി വർക്കുകളുള്ള കുർത്തകള് പിന്നെ ചുരിദാർ സെറ്റുകള് ഇങ്ങനെയുള്ളതെല്ലാം ഈ സംഘടന സംഘടനകൾ താൽപ്പര്യപ്പെട്ട് നടത്തിലാക്കുകയും വ്യവസായ സ്ഥാപനങ്ങള് വളരെ മൂന്നോ പിന്നോക്കത്തുനിന്നു വ്യവസായ സ്ഥാപനങ്ങള് ഈ സംഘടനകള് മുന്നോക്കം കൊണ്ടുവരുകയും ഇത് മുഖാന്തരം നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾ വളരെയധികം മുന്നോട്ടുവന്ന് അവർ സ വിപണി വിപണന മേഖലകൾ കണ്ടുപിടിക്കുകയും അതുവഴി കൂടുതൽ കൂടുതൽ അവരുടെ പ സ സ് ഉണ്ടാക്കിയ ഉൽപന്നങ്ങളെ വിറ്റഴിക്കുകയും ചെയ്യുന്നു